സാങ്കേതികവിദ്യയുടെ ഉപയോഗം നമുക്ക് ചുറ്റുമുള്ള ഇടപഴകുന്ന രീതിയിലേക്ക് ഒരുപാട് മാറ്റി മറിച്ചിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ഈ ഫേസ്ബുക്കും ഒക്കെ വാട്സ്ആപ്പ് ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ടുപോയ നമ്മുടെ ബാല്യകാല സുഹൃത്തുക്കളേ തിരിച്ച് പിടിക്കാനും ഒക്കെ കഴിയുന്നുണ്ട് അല്ലേ അപ്പം സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇപ്പം അവരെ ഏത് നഗരത്തിലാണ് ഉണ്ടായിരുന്നത് എന്ന് വെച്ച് നമുക്ക് അവരുടെ പേരും വെച്ച് നമുക്ക് അവരെ അവർക്ക് സോഷ്യൽ മീഡിയയിൽ ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഫേസ്ബുക്കിൽ ഒക്കെ ആണെങ്കിൽ അവർക്ക് ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് അവരെ തീർച്ചയായിട്ടും കണ്ടു പിടിക്കാൻ പറ്റും പിന്നെ ഫേസ്ബുക്ക് മെസഞ്ചറിൽകൂടെ ഒരു മെസ്സേജ് ഇട്ട് നമുക്ക് അവരുടെ ഫോൺ നമ്പർ ഒക്കെ വാങ്ങിച്ചു പിന്നെ നമുക്ക് ആ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ സാ സാധിക്കും ഒരുപക്ഷേ നമ്മളുടെയൊക്കെ അവരെ ചെറുപ്പത്തിൽ തന്നെ നഷ്ടമായ കൂട്ടുകാർ ആയിരിക്കും അവർ വീട് മാറി താമസിച്ചുപോയോർ താമസിച്ച് മാറിപോയൊരോ അല്ലെങ്കിൽ അച്ഛൻന് ട്രാൻസ്ഫറായി അങ്ങനെയൊക്കെ പോയവരൊക്കെ ആയിരിക്കാം പക്ഷേ നമുക്ക് അവരെ വീണ്ടും നമുക്ക് തിരിച്ചു കിട്ടും പിന്നെ നമുക്ക് ആ ഒരു ബന്ധം നിലനിർത്തി മുന്നോട്ടു കൊണ്ടുപോകാനും പറ്റും പിന്നെ സോഷ്യൽ മീഡിയയ്ക്ക് ഒരുപാട് ദുരു ദോഷഫലങ്ങളും ഉണ്ട് അതായത് ഇപ്പം സോഷ്യൽ മീഡിയ വഴി ഒരുപാട് ഫെയ്ക്ക് അക്കൗണ്ട് വഴിയൊക്കെ പണം ആവശ്യപ്പെടുന്നു അതിൻ്റെ ചതിക്കുഴികളിൽ ഓരോരുത്തർ പെട്ടു പെടുന്നു പിന്നെ ഹണി ട്രാപ്പുണ്ട് ഓരോ പെണ്ണുങ്ങളുടെയൊക്കെ ഫോട്ടോയൊക്കെ കാണിച്ചിട്ട് ഓരോരുത്തരെ കെണിയിൽ പെടുത്തുന്നു അതൊക്കെയാണ് ഈ ഹണി ട്രാപ് അത് ഈ ഇടെ ഒക്കെ ഇടെ ഒരുപാട് നടന്നിട്ട് പോലീസ് ഒക്കെ ഒരുപാട് ആൾക്കാരെ അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട് അത് ഈ ഇൻസ്റാഗ്രാമിലൊകെ റീൽസൊക്കെ ഇടുന്നവരൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ അങ്ങനെയൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരുക്കുകയാണ് അതൊക്കെ വളരെ ഒരു ഇതാണ് ഓരോ ഈ ഫേക്ക് അക്കൗണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് മറ്റുള്ളവരെ പറ്റിക്കും അത് നമ്മൾ അങ്ങനെയുള്ളതിൽ ഒന്നും പെട്ട് പോകാതിരിക്കുക അതൊക്കെ നമ്മൾ തന്നെ നോക്കണം നമ്മുടെ അക്കൗണ്ട് കറക്റ്റയിട്ട് നമ്മൾ തന്നെ അത് പരിപാലിക്കണം